എനിക്ക് ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് ഒരു ക്യാബ് വേണമായിരുന്നു നിൻ്റെ അറിവിലുള്ള ഈ ക്യാബ് ക്യാബ് ഡ്രൈവർ എങ്ങനെയാണ് അവരുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ ഒക്കെ എങ്ങനെയാണ് അതുപോലെ അവർ കറക്ട് സമയത്ത് എത്തുന്ന ആളാണോ നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞ സമയത്ത് തന്നെ അവർ എത്തുകയും നമ്മുടെ പറഞ്ഞ സ്ഥലത്ത് കറക്ട് എത്തിക്കുകയും ചെയ്യുമോ അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് അവരുടെ ഒരു അവർക്ക് എത്ര രൂപ വേണ്ടി വരും കൂടുതൽ എമൗണ്ട് വാങ്ങുന്ന ആളാണോ അയാൾ നമ്മളെ കറക്ട് നമ്മുടെ കൊണ്ടുവിടാനും വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണോ കറക്ട് എത്തിക്കുന്ന ആളാണോ അയാൾ എങ്ങനെയാണ് എനിക്ക് ആ ആ ഊബർ ഒന്ന് ബുക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു നിന്നോട് ചോദിച്ചിട്ട് ബുക്ക് ചെയ്യാമെന്നു വിചാരിച്ചു